അ ഞാൻ വിളിക്കുന്നത് പനവല്ലീന്നാണ് എൻ്റൊരു മാല കാണാണ്ട് പോയി

എനിക്ക് സംശയം ആയിട്ട് ഒരാളുണ്ട് അതെൻ്റെ വീട്ടിനടുത്തുള്ള സന്ദീപ് എന്നൊരാളാണ് അവൻ ഇതിലേ വഴികൂടെ പോയതായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊന്നും ആളുണ്ടായില്ല ഞാൻ വരുന്ന സമയത്തായിരിന്നു അങ്ങനെ പോയത് ഒരു നാല് മണി ആ സമയങ്ങള് അവനിതിലെ പോകുന്ന കണ്ടായിരുന്നു അപ്പോൾ വീട്ടിലാരും ഇല്ലായിരുന്നു ഞാൻ വരുന്ന സമയത്താണ് അവനിവടന്നിറങ്ങി പോയത് അതെ വീട്ടിൽ ബാത്റൂമികുളിക്കാൻ പോയപ്പോൾ അവിടെ ഊരി വച്ചിരുന്നു

അ എത്ര മണിക്കാ വരണ്ടത് എൻ്റെ പേര് സുധീഷ്

ചേറങ്ങോട്ട് പനവല്ലി സർവാണി സർവാണിന്ന് പറയുമ്പോൾ മണിയൻ സ്റ്റോറിൻ്റെ അവടന്ന് ഇടത്തേക്കുള്ള റോഡ് വീട്ടിൽ അച്ഛൻ അമ്മ ചേച്ചി അനിയൻ ഞാൻ ഒന്നുകൂടെ നോക്കിനോക്കാം ഞാൻ ഇപ്പം കുളിക്കാനായി പോയപ്പോളവിടെയാണ് ഊരി വച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ ഓക്കെ ഓക്കെ ഞാൻ കംപ്ലയിൻ്റ് തരുന്നതിന് മുൻപ് ഞാനതുംകൂടെ ഒന്ന് നോക്കീട്ട് അങ്ങോട്ട് വരാം ഓക്കെ ഞാൻ ഇപ്പോയെല്ലായിടത്തും നോക്കി കഴിഞ്ഞു ഇനി നോക്കാനൊന്നൂല്ല അന്നേരം ഒന്നൂടൊന്ന് കൺഫം ചെയ്യാം